ഒരു ബിസിനസ് നടത്താനുള്ള എല്ലാ പ്രകൃതി വിഭവങ്ങളും ഇല്ലെങ്കിലും അത്യാവശ്യം അതിന് വേണ്ടുന്ന ആൾബലം അതിന് വേണ്ടുന്ന സ്ഥലസൗകര്യങ്ങൾ മുതലായ കാര്യങ്ങൾ ഞങ്ങളുടെ പരിസരത്ത് ഉണ്ട് ഒരു ബിസിനസിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വേണ്ടത് അതിൻ്റെ ആൾബലം അഥവാ ലേബർ തന്നെയാണ് മൂലധനത്തിൽപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ് അതിൻ്റെ നിർമാതാക്കൾ അഥവാ അതിൽ പണിയെടുക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ആ ഒരു രീതിയ്ക്ക് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു ബിസിനസ് പ്രവർത്തനം നടത്താനായി ഉപകരിക്കുന്ന വിഭവങ്ങൾ ഉണ്ട് പ്രകൃതി വിഭവങ്ങളെക്കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഒരു വ്യവസായ സ്ഥാപനം എന്ന നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ പ്രകൃതി വിഭവങ്ങളുടെ ചെറിയ തോതിലുള്ള കുറവുണ്ട് എങ്കിലും നെല്ല് ഇഞ്ചി മുതലായ കൃഷികളിൽ അധിഷ്ഠിതമായ ബിസിനസ് ആണെങ്കിൽ അതിനുള്ള വിഭവങ്ങൾ നല്ല രീതിയ്ക്ക് ലഭ്യമാണ്